ഇപ്പം നമ്മുടെ ഗ്രാമപ്രദേശങ്ങളില് ഉള്ള സ്കൂളുകളെക്കുറിച്ച് പറയുവാനാണെങ്കില് കുറെ സവിശേഷതകള് ഉണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമ്മുടെ കുട്ടികള് ആയതുകൊണ്ട് തന്നെ നമുക്ക് അവരോട് നന്നായി ഓപ്പണ് ആയിട്ട് സംസാരിച്ച് അവര്ക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളും എടുത്തുകൊടുത്ത് അവരുടെ പ്രശ്നങ്ങൾ എല്ലാം പരിഹരിച്ച് നമുക്ക് മുന്നോട്ട് പോവാന് സാധിക്കും അതെ സമയം നമ്മള് സിറ്റികളില് ഉള്ള സ്കൂളുകളെക്കുറിച്ച് പറയാനാണെങ്കിൽ അവിടെയാണെങ്കില് ഇപ്പോൾ ഫുള് എന്താ പറയുക മീന്സ് നമ്മൾ അവരെ മനസ്സിലാക്കുന്നില്ല കുട്ടികള് ആണെങ്കിൽ ഫുള് സ്വന്തം കാര്യം മാത്രം പെര്ഫെക്ട് ആയി നോക്കി നടത്തുകയാണ് നാല് ചുമരുകളില് ഉള്ള ക്ലാസ്സുകളിനുള്ളില് അവർ പുറത്ത് ഇറങ്ങുമോ അങ്ങനത്തെ ഒരു കാരൃങ്ങളും ഇല്ല ഇപ്പൊ നമ്മുടെ ഇവിടെ ഗ്രാമ പ്രദേശങ്ങളിലുള്ള കുട്ടുകാരെക്കുറിച്ച പറയുകയാണെങ്കിൽ എല്ലാവരും നല്ല സന്തോഷത്തോടെ ഒത്തൊരുമയോടെ അങ്ങോട്ടും ഇങ്ങോട്ടും പഠിച്ചും കളിച്ചും ചിരിച്ചും എല്ലാമാണ് നമ്മുടെ ഈ ഗ്രാമ പ്രദേശങ്ങളില് അതെ സമയം എന്താ ഇപ്പോൾ പുറത്തുള്ള സ്കൂളുകളിൽ ആണെങ്കില് ഒരു കുട്ടി മറ്റേ കുട്ടിയോട് സംസാരിക്കുകയോ ടീച്ചേഴ്സിനോട് അത്ര ഫ്രണ്ട്ലിയായി നടക്കുകയോ ഒന്നും ഇല്ല നമ്മള് ഇവിടെ ആണെങ്കിൽ നമ്മുടെ മാതൃഭാഷയെക്കുറിച്ചും അതുപോലെതന്നെ നമ്മുടെ ഇവിടെ മലയാളികളുടെ ഓരോ ഓരോ പ്രതൃേക ദിവസങ്ങളെക്കുറിച്ച് പറഞ്ഞ് അവര്ക്ക് വേണ്ടിയുള്ള ഓരോ ക്ലാസ്സുകളും എല്ലാം ടീച്ചേഴ്സ് എടുത്ത് കൊടുക്കുകയും ഒക്കെ ചെയ്യും അതെ സമയം എന്താ എപ്പോൾ പുറത്ത് സിറ്റികളിൽ ആണെങ്കിൽ അതൊന്നും നോക്കാതെ ഫുള് സി ബി എസ് ഇ ആയിട്ട് പഠിപ്പിക്കുകയും അങ്ങെനെ എല്ലാം ചെയ്യും ഇപ്പോൾ റോബോട്ടുകളെപ്പോലെ പരിശീലിപ്പിക്കുന്ന അവസ്ഥയാണ് നമ്മുടെ ഈ സിറ്റികളില് കാണപ്പെടുന്നത് ഇപ്പോൾ നമ്മുടെ ഈ ഗ്രാമപ്രദേശങ്ങളിൽ വച്ച് വച്ച് നോക്കുകയാണെങ്കിൽ ഫീസൊ കാര്യങ്ങളൊ ഒന്നും ഇല്ല നമുക്ക് വിദ്യ പഠിപ്പിച്ചു തരുന്ന ടിച്ചേഴ്സ് അതുപോലെ നമ്മളെ അത്ര സഹായകരമായി പഠിപ്പിക്കുകയാണ് അതെ സമയം സിറ്റികളില് നോക്കുകയാണെങ്കിൽ അവർ ഫീസ് കുടുതല് വാങ്ങുകയും നമ്മളെ എന്താ പറയുക നമ്മളെ വല്ലാണ്ട് നമ്മളെ ഇതാക്കുന്നത് പോലെ നമ്മളെ ഇതാക്കുകയാണ് അവർ ചെയ്യുന്നത്